ഹലോ ആ എനിക്കിപ്പോൾ ഞാൻ രമ്യ ആണ് കുറച്ച് ഗോൾഡ് എടുക്കാൻ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല നൈൻ വൺ സിക്സ് ഗോൾഡ് കിട്ടുന്ന ഇത് ഷോപ്പ് ഏതാണ് ആ ഫംഗ്ഷന് ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഗോൾഡ് എടുക്കാൻ പോവാൻ വേണ്ടിയിട്ട് ആണ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനും ഉണ്ട് അപ്പോൾ അപ്പോൾ എല്ലാം ഒരുമിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഗോൾഡ് കിട്ടുന്ന നൈൻ വൺ സിക്സ് കിട്ടുന്ന ഷോപ്പ് ഏതാണ് കൃത്യം ആയിട്ട് അറിയാമോ കടയിൽ പോയിട്ട് നേരിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്

ഏതാ ഏതാ ബിന്ദുവോ കാസർഗോഡ് ആ അത് അത് എവിടെ ആയിട്ട് ആണ് സ്ഥലം കറക്റ്റ് അതെയോ പരിചയം ഉള്ള ആരെങ്കിലും ഉണ്ടോ ആ ആ ആ

ന്യൂ ഇയറോ അതെയോ ആ ആ അതെയോ ആ ആ നൈൻ വൺ സിക്സ് തന്നെയല്ലേ അവിടെ എങ്ങനെയാണ് കളക്ഷൻ ഒക്കെ ഒരുപാട് ഉണ്ടോ

ഡയമണ്ട് അല്ല ഗോൾഡാണ് ആ ആ ആ ആ അപ്പോൾ മുമ്പ് അവിടുന്ന് എടുത്തിട്ടുണ്ടോ ഇത് എന്തെങ്കിലും ആ എടുത്തിട്ടുണ്ടല്ലേ ആ ആ അപ്പം നല്ലത് ബിന്ദുവിലാണ് ആ ആ ആ ആ ശരി